കോഴിക്കൃഷി യെ പറ്റി പറയുകയാണെങ്കില് എനിക്ക് കോഴി വളര്ത്തലുണ്ട് ഒരുപാട് കോഴികളൊന്നും ഇല്ല കുറച്ച് കോഴികളെ ഞാന് വളര്ത്തുന്നുണ്ട് അതിന്റെ ലാഭവും വളരെ വലുതാണ് ഒന്ന് നമുക്ക് കോഴി ഇറച്ചി ഉപയോഗിക്കാം രണ്ടാമത് മുട്ട പിന്നെ കോഴി വളം ഇത് മൂന്ന് ഗുണങ്ങളാണ് കോഴി കൃഷിയില് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ്കൾ ഭക്ഷണസാധനം വേസ്റ്റ്കളെല്ലാം നമുക്ക് കോഴിക്കൃഷിയില് കോഴിക്ക് കൊടുക്കാന് പറ്റും അത് കൂടാതെ കുറച്ച് കോഴിത്തീറ്റ നമ്മള് പുറത്ത് നിന്ന് വാങ്ങിയാൽ മതി നമ്മുടെ വീട്ടാ നമുക്കാവശ്യമുള്ള മുട്ട ലഭിക്കും ഇറച്ചി ആണേലും കോഴി കോഴിത്തീറ്റ കോഴിയുടെ കാഷ്ടം വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാന് പറ്റും മറ്റുള്ള കൃഷികള്ക്ക് ഈ വളം ഉപയോഗിക്കാന് പറ്റുന്നതാണ് കോഴി വളര്ത്തല് എപ്പോഴും നമ്മുടെ വീടുകളില് ലാഭകരമായിട്ടേ പോവുകയുള്ളു നാ ഞാനിതിനാണ് ഇതില് കൂടുതല് കോഴികളെ വളര്ത്തണമെന്ന് ഞാന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അസൗകര്യം കാരണം കുറച്ച് ഉള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനും ബാക്കി ഉള്ള മുട്ട നമ്മള് പുറത്ത് കൊടുക്കേം ചെയ്യുന്നുണ്ട് ഇത് കൊണ്ട് പല പല ഗുണങ്ങള് നമ്മുടെ നാടിനും രാജ്യത്തിനും ഉണ്ടാകുന്നുണ്ട് എന്തെന്നാല് നമ്മള് ഉല്പ്പാദിപ്പിക്കുന്ന വസ്തുക്കള് മറ്റുള്ളവര്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതോടൊപ്പം അതിന് അതിനുള്ള പൈസയും നമുക്ക് ലഭിക്കും അത് കൂടാതെ മറ്റുള്ള കൃഷികളും എനിക്കുണ്ട് എല്ലാ കൃഷികളിലും ഞാന് തല്പ്പരനാണ് കൃഷി ആണെന്റെ മെയിന്നായിട്ട് ഞാന് ചെയ്യുന്നത് റബ്ബറ് അത്പോലെ തന്നെ കപ്പ ചേന ചേമ്പ് കാച്ചിൽ തേങ്ങ നാളികേരം ഇതെല്ലാം എനിക്ക് ഉണ്ട് അങ്ങനെ കാര്ഷിക മേഖലയാണ് എനിക്ക് എപ്പോഴും താല്പ്പര്യമുള്ളതും മനുഷ്യന്റെ ആരോഗ്യത്തിനും രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാം കോഴിയെ നോക്കാം പറമ്പുകളിലുള്ള മറ്റുള്ള കാട് കാട് ഒക്കെ പറിച്ച് കളയുകയും അതിനെ പരിചരിക്കേം ചെയ്യുന്നതില് ഞാന് വളരെയധികം താല്പ്പരനാണ് പിന്നെ കോഴിയെ കൃഷിക്ക് പറ്റി എനിക്ക് മറ്റ് കൂടുതലായിട്ടൊന്നും പറയാനില്ല കോഴി വളര്ത്തല് എപ്പോഴും നല്ലതാണ് കോഴി താറാവ് ഇതൊക്കെ ഉള്ള എനിക്ക് നേരെത്തെ താറാവും ഉണ്ടായിരുന്നു ഇപ്പം താറാവ് വളര്ത്തുന്നില്ല കാരണം ജലത്തിന്റെ വെള്ളത്തിന്റെ ക്ഷാമം കാരണം താറാവ് കൃഷി കുറവാണ് കുറവെന്നല്ല ഇപ്പോള് ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം വളര്ത്തുന്നില്ലന്നേ ഉള്ളു പിന്നെ എല്ലാവരും ഇതൊക്കെ ഇങ്ങനുള്ള കൃഷികളൊക്കെ ചെറിയ ചെറിയ കൃഷികളക്കെ ചെയ്ത് ജീവിച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള നല്ല വിഷാംശം ഇല്ലാത്ത ഭക്ഷ്യ യോഗ്യമായ ആഹാരങ്ങള് നമുക്ക് കഴിക്കാന് പറ്റും മറ്റുള്ള രോഗങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് സാധിക്കുന്നതാണ്